പാചകം എന്നും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഏതു തരം പാചക ക്രമമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നു ചോദിച്ചാൽ ഞാൻ എനിക്ക് എപ്പോഴും അടുക്കും ചിട്ടയോടെ പാചകം ചെയ്യുന്നതാണ് ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം അതായത് ഇപ്പോൾ ഒരു കറി വെക്കുകയാണെങ്കിൽ ആദ്യം കറിക്കുള്ള സാധനങ്ങൾ പറിച്ചോണ്ട് വരിക അതിന് ശേഷം അത് വൃത്തിയാക്കുക അതിനുശേഷം വൃത്തിയാക്കി അത് വെച്ച് അതിൻ്റെ ചേരുവകളെല്ലാം ശരിയാക്കി ഒരു സ്ഥലത്തെടുത്ത് വെച്ച് വളരെ സാവധാനം അത് ഓരോ ഘട്ടം ഘട്ടമായി അത് കറിയിൽ ചേർത്തത് ആ കറിയായിട്ടെടുത്ത് ആസ്വദിച്ച് ആ ഒരു കറിയായിട്ട് അതെടുത്ത് അതിൻ്റെ ആ ഒരു ആദ്യ തുള്ളിയെടുത്ത് നാവിൽ വെച്ച് നോക്കുന്ന ആ ഒരു നിമിഷം വരെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കാരണം അത്തരത്തിൽ ഞാൻ ആദ്യം കൈ സാധനങ്ങൾ ശരിയാക്കി വെക്കും വൃത്തിയാക്കും അതിനുശേഷം അതിന് സൈഡിൽ നല്ല ഒതുക്കി അടുക്കി വെക്കും അതിനു ശേഷമാണ് ഞാൻ പാചകം ചെയ്യാർ എപ്പോഴും അപ്പം എനിക്കെപ്പോഴും അങ്ങനെയാണ് ഇഷ്ടം എല്ലാം അടുത്തടുത്ത് വെച്ച് അവിടെ ഇരുന്ന് അതിനെ ആസ്വദിച്ച് ഞാൻ പാചകം ചെയ്യുമ്പം ഞാൻ സത്യത്തിൽ പാചകത്തിനെ ആസ്വദിക്കുകയാണ് ചെയ്യാറ് പാചകം സത്യത്തിൽ ഒരു ജോലിയല്ല മറിച്ച് ഒരു കലയായിട്ടാണ് എനിക്കെന്നും തോന്നീട്ടുള്ളത് നമ്മളപ്പം അത്രയധികം അതിനെ ആസ്വദിക്കുമ്പോൾ അത് നമ്മളെ ആസ്വദിക്കാൻ തുടങ്ങും അപ്പോൾ ആ കറിക്ക് രുചി കൂടുമെന്ന് എനിക്കെന്തോ എപ്പോഴോ തോന്നീട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും നല്ല അടുക്കും ചിട്ടയോടും പാചകം ചെയ്യുന്ന ആ ഒരു ക്രമം തന്നെയാണ് എപ്പോഴും ഇഷ്ടം കാ ആ കറി എനിക്കെന്നും ഏറ്റോം കൂടുതൽ പ്രിയപ്പെട്ടതും ആണ്